നമസ്ക്കാരം ഹോട്ടൽ ആര്യാസല്ലെ എനിക്ക് ഒരു ചിക്കന് ബിരിയാണി ഓർഡർ തരുന്നതിനായിട്ടായിരുന്നു ഞാന് വിളിച്ചത് എനിക്ക് ഒരു ചിക്കന് ബിരിയാണി വേണമായിരുന്നു ചിക്കന് ബിരിയാണിയിൽ എരിവ് കുറച്ച് രണ്ട് ചിക്കന് ഫ്രൈയും കൂടി ചേര്ത്തിട്ട് ഉള്ള ചിക്കന് ബിരിയാണിയാണ് ഞാനാഗ്രഹിക്കുന്നത് അതിന്റെ കൂടെ ക്യാരറ്റ് ക്യുക്കമ്പര് സവോള പച്ചമുളക് തൈര് ചേര്ത്തിട്ടുള്ള ഒര് സാലഡും അച്ചാറിനായി ഞാനാഗ്രഹിക്കുന്നത് മാങ്ങാ അച്ചാറാണ് കൂട്ടത്തില് ഡെസ്സേട്ടിനായി ഒരു ചീസ് കേക്കും കൂടി അഡീഷ്ണല് വെയ്ക്കാന് ഞാനാഗ്രഹിക്കുന്നു എന്റെ അപ്പറ്റൈസറിൽ കുറച്ച് എരിവ് മതി ഉപ്പും പാകത്തിന് അപ്പോൾ ഇത് കൊണ്ടെത്തിക്കേണ്ടത് എസ് എസ് ലൈന് എസ് എസ് ഭവന് എറണാകുളത്താണ് ഇവിടെ എത്തിച്ചതിന് ശേഷം എന്റെ കോണ്ടാക്റ്റ് നമ്പറായ ഏഴ് രണ്ട് പൂജ്യം ഒന്ന് എട്ട് ഏഴിലേക്ക് വിളിച്ചാൽ മതിയാവും ഞാന് വന്ന് വാങ്ങിക്കൊള്ളാം അപ്പോൾ ഒരു ഒര് മണിക്ക് മുന്നേ എനിക്കിത് എത്തിച്ച് തരേണ്ടതായിട്ട് ഉണ്ട് ഇതിന് എത്ര വില വരുമെന്ന് എത്രയും വേഗം തന്നെ ഒരു മെസ്സേജ് ചെയ്കയാണെങ്കില് ഞാനത് ഇപ്പോള്ത്തന്നെ അടച്ച് എനിക്കതിന്റെ ബില്ല് തന്നാല് മതിയാവും അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങള് എത്രയും വേഗം എത്തിക്കാനായിട്ട് ശ്രമിക്കുക